പരമ്പരാഗത നൃത്ത രീതികളെന്ന് പറയുമ്പോൾ അതിൽ ആളുകൾ ഈ നൃത്തം അവതരിപ്പിക്കുന്ന സമയത്ത് കൂടുതലായി കാഴ്ചക്കാർ ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങളിൽ ഒന്നാണ് ഈ വസ്ത്രധാരണം എന്നു പറയുന്നത് അല്ലാതെ ആളുകൾ ശ്രദ്ധിക്കുന്നത് ഇതുപോലെ നൃത്തത്തിൻ്റെ മുദ്രകൾ പിന്നെ ആ ഒരു എന്താണ് ഈ അവതരിപ്പിക്കുന്ന സമയത്തുള്ള ഗാനം അങ്ങനെ തുടങ്ങിയ പല കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഏറ്റവും പ്രധാനമായും വസ്ത്രങ്ങളും ആഭരണങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ ദേശത്തില് ഓരോ ദേശത്തിലും ഓരോ തരത്തിലുള്ള നൃത്തരൂപങ്ങൾ ആയിരിക്കും ഇപ്പോള് കേരളത്തിൽ ഉള്ള നൃത്തരൂപം പ്രധാനപ്പെട്ട നൃത്തരൂപം കഥകളി ആണെങ്കിൽ അത് തമിഴ് നാട്ടിലേക്ക് പോകുമ്പോൾ ഭാരതനാട്യവും മോഹിനിയാട്ടവും അങ്ങനെ തുടങ്ങിയ ഒരുപാട് ദേശങ്ങളിൽ ഇപ്പോൾ ആന്ധ്രപ്രദേശിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ കുച്ചുപിടി ആയിരിക്കും അപ്പോള് ഇങ്ങനെയുള്ള പല നാടുകളിലും പലതരത്തിലുള്ള നൃത്ത ആവിഷ്കാരങ്ങൾ ആയിരിക്കില്ലേ അപ്പോള് അതിൽ ഓരോ നൃത്തത്തിലും അതിൻറ്റേതായ വസ്ത്രധാരണവും അതിൻറ്റേതായ ആഭരണങ്ങൾ അണിയുന്നതും മുഖത്ത് ചായം പുരട്ടുന്നതും അങ്ങനെയുള്ള പല കാര്യങ്ങളും അടങ്ങിയിരിക്കുന്നു ഉദാഹരണത്തിന് കഥകളി പോലുള്ള നൃത്തത്തിൽ അവര് അതില് അതിൽ ചായം പുരട്ടുന്ന ചില രീതികളുണ്ട് പച്ച കത്തി കരി തുടങ്ങിയ ചില രീതികളുണ്ട് അതുപോലെ വസ്ത്രധാരണമാണെങ്കിൽ തന്നെ കൂടുതലായി അതിൽ ഉപയോഗിച്ചു കാണുന്നത് സാരി തുടങ്ങിയ വസ്ത്രങ്ങളാണ് ചിലങ്കകൾ പിന്നെ ഈ കൈവളകൾ അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ കഥകളിയിൽ കണ്ടുവരുന്നുണ്ട് അതുപോലെ ഭരതനാട്യത്തിൽ ആണെങ്കിലും ഈ കൂടുതലും ഉപയോഗിച്ചു വരുന്നത് പട്ടു സാരികളാണ് വളകൾ ധാരാളം ആയി അണിയുന്നുണ്ട് അതുപോലെത്തന്നെ കാലില് ചിലങ്കകൾ പിന്നേ ഈ ആഭരണങ്ങൾ അതായത് മാല കമ്മലുകൾ തുടങ്ങിയ ആഭരണങ്ങളെല്ലാം ഉപയോഗിച്ചു കാണുന്നുണ്ട് അതുപോലെത്തന്നെ മുടിയുടെ ഒരു സവിശേഷത എടുക്കുവാണേൽ അതിൽ ഈ എന്താണ് പൂക്കൾ ഉപയോഗിച്ചു വരുന്നത് മുല്ലപ്പൂവും പിന്നെ അതുപോലെത്തന്നെ ഈ തമിഴ്നാട്ടിൽ കണ്ടുവരുന്ന ഒരുതരം ചെമ്പകം എന്നു പറയുന്ന പൂവും ഒക്കെ അതിൽ ഉപയോഗിച്ചു വരുന്നുണ്ട് വസ്ത്രധാരണം അത് പറയുവാണെങ്കിൽ ചേല ചുറ്റുന്ന പോലെ ആണെന്ന് തോന്നുന്നു ഈ ഭരതനാട്യത്തിൽ വരുന്നത് പിന്നേ മോഹിനിയാട്ടത്തിലാണെങ്കിൽ അത് ഈ പട്ട് സാരി അത്ക്ക് പകരം അവിടെ ഉപയോഗിക്കുന്നത് കസവാണ് വെള്ള കസവ് പോലുള്ള നേരിയതുപോലുഉള്ള സാരികളാണ് മോഹിനിയാട്ടത്തിൽ ഉപയോഗിച്ചു കാണുന്നത് പിന്നെ ആഭരണങ്ങളും സ്വർണാഭരണങ്ങളാണ് ഈ ഒരു കഥകളി കഥകളി അല്ലെങ്കിൽ അത് ഭരതനാട്യം ഭരതനാട്യം ഈ മോഹിനിയാട്ടം തുടങ്ങിയ ഈ ഒരു നൃത്തങ്ങളിൽ സ്വർണാഭരണങ്ങൾ കൂടുതലായി ഉപയോഗിച്ചു കാണുന്നുണ്ട് അതുപോലെ ചില ആഭരണങ്ങൾ എന്ന് പറയുന്നത് ഈ കാശി മാല അതുപോലെത്തന്നെ ഈ പളുങ്കുമാലകൾ പിന്നെ പിന്നെ ഈ കമ്മലുകളാണെങ്കിൽ സ്വർണ്ണ കമ്മലുകളായിട്ട് അത് മുത്തുവരുന്ന കമ്മലുകളായിരിക്കും ഉപയോഗിച്ചുവരുന്നത് അങ്ങനെ പല അത് നമ്മള് കാഴ്ചക്കാരെ കൗതുകം കൊള്ളിക്കുന്ന ഒരുപാട് തരത്തിലുള്ള ആഭരണങ്ങൾ ഈ പറഞ്ഞ നൃത്ത രൂപങ്ങളിൽ നമ്മൾ ഉപയോഗിച്ച് കാണുന്നുണ്ട് ഇങ്ങനത്തെ ആഭരണങ്ങൾ ആണ് സത്യം പറഞ്ഞാല് ഈ ഒരു നൃത്തത്തിന് കൂടുതൽ ഭംഗി കൊടുക്കുന്നത് അതുപോലെത്തന്നെ അവരുടെ വസ്ത്രധാരണ രീതിയും സാരി തുടങ്ങിയ വസ്ത്രധാരണങ്ങളാണ് പരമ്പരാഗതമായി ഭരതനാട്യത്തിലൊക്കെ ഉപയോഗിച്ച് കാണുന്നത് ഇപ്പോൾ അത് മറ്റു ദേശങ്ങളിൽ ആണെങ്കിൽ ഇപ്പോൾ മണിപ്പൂർ ആസാം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വേറെ തരത്തിലുള്ള ചില വസ്ത്രങ്ങൾ ആയിരിക്കും അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായി അറിയില്ല കാരണം അവിടെയും ഇതുപോലെത്തന്നെ ഈ പട്ടിൻ്റെ തരത്തിലുള്ള തുണിത്തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ഉപയോഗിച്ച് കൂടുതലായി കാണുന്നതും പിന്നെ ആഭരണങ്ങൾ ആണെങ്കിൽ ഇവിടുത്തെ പോലത്തെ ആഭരണങ്ങൾ ആയിരിക്കില്ല അവിടെ മുത്തുവച്ച മാലകളും തുടങ്ങിയ ആഭരണങ്ങളായിരിക്കും അവിടെത്തെ ആൾക്കാര് ഉപയോഗിച്ച് കാണുന്നത് പിന്നെ പല നൃത്ത രൂപങ്ങളും ഈ നമ്മുടെ ഇൻഡ്യയിൽ ഇപ്പോൾ ഉണ്ട് അപ്പോള് എല്ലാ സംസ്ഥാനത്തിലും ഒരു പോലെ ആയിരിക്കില്ല പല സംസ്ഥാനത്തിലും പല നൃത്ത രൂപങ്ങളും പലതരത്തിലുള്ള വസ്ത്രധാരണവും ആഭരണ അലങ്കാരങ്ങളും ചായം പുരട്ടുന്നതായാലും അത് വത്യസ്തമായിത്തന്നെ മാറിക്കൊണ്ടിരിക്കും എന്നതാണ് ഒരു യഥാർഥ്യം